ഞാനൊരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൈസും എല്ലാം കാര്യങ്ങളും അടിപൊളിയായിരുന്നു ഒരു പാർട്ടി വെയറിന് വേണ്ടി മേടിച്ച ഒരു പ്രൊഡക് ഹാൻഡ് ബാഗ് ആയിരുന്നു അതിൻ്റെ കളർ നീലയായിരുന്നു അടിപൊളിയായിരുന്നു സ്റ്റിച്ചിങ്ങും അതിൻ്റെ എല്ലാം സൂപ്പറായിരുന്നു അടിപൊളി പ്രൊഡക്റ്റ് ആണ്